ന്നൊണ്ട് മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും ഇനി വരും കാലഘട്ടങ്ങളിൽ ആണെങ്കിലും ഈ സാങ്കേതിക വിദ്യയിലൂടെ മാത്രമേ നമുക്ക് പോകാൻ കഴിയുകയുള്ളൂ നമ്മൾ സീരിയസ് ഒക്കെ ആയിട്ട് ആശുപത്രിയിൽ പോവട്ടെ അവിടെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് അറിയണമെങ്കിൽ എങ്കിൽ നമുക്ക് രോഗങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ എല്ലാം നമ്മൾ ഈ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചിരിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പുരോഗതിയുടെ ഒരു കാലഘട്ടമായിട്ട് നമ്മൾ ഇപ്പം പോവുകയാണ് അപ്പം അവിടെ പുരോഗതിക്ക് ഏറ്റവും അത്യാവശ്യമായൊരു കാര്യമാണ് നമ്മുടെ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ അത് ആയാസരഹിതമാക്കും നമുക്കുള്ള വെറ് വരും തലമുറകൾ ആ സാങ്കേതിക വിദ്യയിലൂടെ മാത്രമേ അവർക്ക് മുമ്പോട്ട് പോകാനെക്കൊണ്ട് കഴിയുകയുള്ളൂ അപ്പം നമ്മുടേത് പഠനത്തോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികളുടെ പഠന ജീവിതത്തിൻ്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ടെക്ക്നിക്കൽ ആയിട്ട് അവരെ പഠിപ്പിക്കാനേ കൊണ്ട് ഇന്ന് കഴിയണം അതിന് നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും അതിന് സഹായകരമായിട്ടുള്ള പഠനം നമ്മൾ കൊടുക്കേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് എന്തൊക്കെ കാരണമാണെങ്കിലും വരും കാലമാണെങ്കിലും നമുക്ക് സാങ്കേതിക വിദ്യയെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് കണക്കാക്കുന്നത് മെഷീൻ ടെക്നോളജി ഇല്ലാതെ മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് വരും തലമുറയോടൊത്ത് നമ്മൾ പിടിച്ച് നിൽക്കണമെങ്കിൽ നമ്മൾ ഈ സാങ്കേതിക വിദ്യ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അവരോടൊപ്പം തന്നെ മുന്നോട്ട് പോകാനെക്കൊണ്ട് കഴിയുകയുള്ളൂ